ഇപ്പോൾ ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പല രീതിയിൽ ഉള്ള ജാതിയിൽ പെട്ടവരായിരിക്കും പക്ഷെ ഇവരെല്ലാവരും ഒത്തൊരുമയോടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചവരാണ് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ചാകര വരിക അങ്ങനത്തെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഉത്സവമൊക്കെ ആയിട്ടാണ് ഇവർ ആഘോഷിക്കാറ് അപ്പോൾ ഇവർക്ക് ചാകരയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കടലമ്മ അനുഗ്രഹിക്കുന്ന പോലെയാണ് ഈ മത്സ്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ഇവർക്ക് കിട്ടുന്നും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഉത്സവം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇവർ എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അതായത് ഇത് ഇപ്പോൾ അടുത്തടുത്ത വീടുകൾ മതിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇവരെല്ലാവരും ഈ കടലിൻ്റെ തീരത്താണ് കൂടുതലായിട്ടും താമസിക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രം അവർക്ക് വേറെ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് താമസിക്കേണ്ടി വരും ഈ തിരമാല വലിയ രീതിയിൽ അടിക്കുമ്പോഴൊക്കെ പോയി താമസിക്കേണ്ടി വരും എന്നാലും ഇവർ ഒരുമിച്ചാണ് നിൽക്കുക